ആ ഞാൻ വിളിച്ചത് നമുക്ക് നമുക്കുണ്ടല്ലോ നിങ്ങളുടെ ഏരിയയിൽ എവിടെ എങ്കിലും നമുക്ക് ഒന്ന് ഫാമിലി ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഷാപ്പ് വല്ലതും ഉണ്ടോ കുറച്ച് ഫുഡ് കഴിക്കണം ഇത്തിരി കള്ള് കള്ള്

ആണല്ലേ അപ്പോൾ നമുക്ക് വണ്ടി ഒക്കെ കൊണ്ടുവന്ന് വണ്ടി ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമോ ആണല്ലേ റോഡരികിലാണോ എങ്ങനെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഹട്ടുകളൊക്കെ ഹട്ടുകളൊക്കെ ഉണ്ടല്ലേ ഹട്ടുകളൊക്കെ ഉള്ളതാണോ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് ആണല്ലേ അവിടെ പ്രധാനമായിട്ടും എന്തൊക്കെ ആണെന്ന് ചേട്ടന് അറിയാൻ പറ്റുമോ എന്തൊക്കെ ഫുഡ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഓ ഓ ലൈവ് ആണല്ലേ ലൈവ് അല്ലേ എല്ലാം ഓക്കെ ലൈവ് ആയിട്ട് എടുത്ത് തരും അല്ലേ ഓക്കെ വണ്ടി പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടല്ലേ നമുക്ക് മറ്റേ ശകലം കള്ളൊക്കെ കുടിച്ച്

ആണല്ലേ അപ്പം ആ ഷാപ്പിൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ തിരക്കായിരിക്കും അല്ലേ ഷാപ്പ് ആറ്റുമുഖം അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ ആണല്ലേ ഇവിടുന്ന് കയറുന്ന വഴിയിൽ കൂടെ കുറച്ച് അങ്ങോട്ട് പോവണോ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ പോവണോ ആ രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ നമ്മുടെ വഞ്ചി വീടെന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഉള്ള അതെല്ലാം കഴിയുമ്പോഴാണോ

ആ ആ ആ കള്ളൊക്കെ എങ്ങനെയാണ് ചേട്ടാ നല്ല കള്ളാണോ നല്ല കള്ളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിട്ട് പിന്നെ ആയിരിക്കരുത് കേട്ടോ നല്ല തിരക്കുള്ള ഷാപ്പാണ് അല്ലേ അത് തിരക്കുള്ള ഷാപ്പാണ് ആണല്ലേ ആണോ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയല്ല ഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആലപ്പുഴയാണ് കാരണം ആ ആ ആ ഉവ്വ് പാർക്കിംഗ് പാർക്കിംഗ് കൂടെ നമുക്ക് വേണം കേട്ടോ എന്നാലല്ലേ നമുക്ക് പറ്റുള്ളൂ ആണല്ലേ ഞങ്ങൾ ഞങ്ങളൊരു എട്ട് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം ഇല്ലല്ലേ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുവോ വല്ലതും വേണോ അങ്ങനെ ആണോ ബുക്ക് ബുക്ക് ചെയ്തിട്ട് വരേണ്ടി വരുവോ നമ്മൾ ബുക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടോ നേരത്തെ ബുക്ക് ചെയ്യണോ ആ ഉവ്വ് നേരെ ആണല്ലേ ആ ആ ആ ആ റേറ്റ് ഒക്കെ എങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെ ആണോ നോക്കുമ്പം കത്തിയാണോ ആ ആണല്ലേ അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഒരു അടുത്ത ദിവസം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം ഒരു ദിവസം അടുത്ത ശനിയാഴ്ച വല്ലതും ഞങ്ങൾ അങ്ങോട്ട് വന്നാലോ അല്ലെങ്കിൽ ആണല്ലേ എന്നാൽ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് വേണ്ടി നമുക്ക് വരാം അപ്പോൾ ഞാൻ അവിടെ വരുമ്പോഴത്തേക്കും ചേട്ടനെ ഒന്ന് വിളിക്കാം അപ്പോൾ ചേട്ടൻ ഒന്ന് അറേഞ്ച് ചെയ്തുതന്നാൽ മതി കേട്ടോ എന്നാൽ ഓക്കെ ബുക്ക് ചെഓ